രണ്ട് ഒന്ന് രണ്ടായിരം മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി എട്ട് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്